ഹലോ ആ എടാ നിന്നെ ഞാൻ എന്താണ് വിളിച്ചതെന്ന് അറിയുമോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സേ പുറത്തുനിന്ന് വരുന്നുണ്ട് ആ അപ്പം ഈ ഫിലിമിൻ്റ ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആ അപ്പം അവർക്ക് ഇങ്ങനെ കഥ എഴുതാനൊക്കെ കുറച്ച് ആംബിയൻസ് ഉള്ള വല്ല പ്ലേസോ വീടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ട്രഡീഷ് ആ ട്രഡീഷണൽ ഹൗസ് ഒക്കെ ഈ അധികം സൗണ്ട് ഒന്നും ഇല്ലാത്തത് ആ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിൻറെ അറിവിൽ ഉണ്ടോ

നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല ആംബിയൻസ് ഉള്ള പീസ്ഫുൾ ആയിട്ട് ഈ എന്താണ് പറയുക നല്ല ഈ സൗണ്ട് ഒന്നുമില്ലാത്ത കാം ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ ആ ആ ആ അവർ ഒരു വൺ വീക്ക് ആണ് പറഞ്ഞത് അത് എവിടെ ആയിട്ടാണ് പ്ലേസ് എവിടെ ആയിട്ടാണ് വരുന്നത് ആ പിന്നെയോ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ നീ എന്തായാലും ഒന്ന് ഫോട്ടോ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തേക്ക് ആ വൺ വീക്ക് അതിനുള്ളിൽ സെറ്റ് ആക്കണമായിരുന്നു അപ്പത്തേന് ഒക്കെ അവർ വരുവേ ആ ആയിക്കോട്ടെ നീ ഒന്ന് ഫോട്ടോ എന്തായാലും വാട്ട്സ്ആപ്പ് ചെയ്തേക്ക് കേട്ടോ ആ ഞാൻ ആ ആയിക്കോട്ടെ എന്തായാലും നീ പിക് ഇട്ടേക്ക് ആ ഞാൻ നോക്കിയിട്ട് പറയാം ആ ആ ആ ഓക്കെ ഓക്കെ ആ ആയിക്കോട്ടെ പറയാം